ഫെയ്സ്ബുക്ക് ട്വിറ്ററ് അതൊന്നും ഉപയോഗച്ചിട്ടില്ല ഇൻസ്റ്റഗ്രാം ഉപയോഗിച്ചിട്ടുണ്ട് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന നിലയില് ഇൻസ്റ്റഗ്രാമ് നമുക്ക് കുറെ ആസ്വാദകരമാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്നും കിട്ടും ഒരുപാട് നമുക്ക് എന്താണ് കുറെ കുറെ ആൾക്കാരുടെ അഭിനയം നമുക്ക് അതിൽ നിന്നും കണ്ടാൽ കാണാൻ കഴിയും പിന്നെ എന്താ നിങ്ങൾക്ക് ഏത് മേഖലയാണോ വേണ്ടത് ആ മേഖലയെ കുറിച്ചുള്ള വീഡിയോസുകള് അതിൽ നിന്നും കിട്ടാറുണ്ട് എനിക്കിഷ്ടമാണ് അതിൽ എല്ലാ വീഡിയോസുകളും കാണാൻ കൂടുതലും ഞാനും ഫുഡിന്റെ വീഡിയോസുകളാണ് കാണാറുള്ളത് പിന്നെ ഡ്രസ്സുകളുടെയും ഒരുപാട് സമയം ഒന്നില്ലെങ്കിലും നമുക്ക് ഈ ഞാൻ എപ്പോഴെങ്കിലും ഫ്രീ ആകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പോകുന്നത് അല്ലെങ്കിൽ ചിലവഴിക്കുന്നത് ഇൻസ്റ്റഗ്രാമിലായിരിക്കും പിന്നെ എനിക്കിഷ്ടപ്പെടാത്ത ഒരു കാര്യം എന്താന്ന് പറഞ്ഞാല് ആവശ്യം ഉള്ളപ്പോൾ ഇല്ലാത്ത അല്ലെങ്കില് കാണാൻ പറ്റാത്ത കുറെ വീഡിയോകൾ വരും ആ വീഡിയോകൾക്ക് ആവശ്യമില്ലാത്ത കമന്റുകൾ വരും അതൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഇൻസ്റ്റഗ്രാമിനോട് ആ വീ അങ്ങനത്തെയുള്ള വീഡിയോകള് ഇടരുതെന്ന് പറയാം അതാണ് എനിക്കതില് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം